എൻ്റെ ഇഷ്ടപ്പെട്ട കായിക താരം ലേണൽ മെസി ലേണൽ മെസി അർജൻറ്റീനക്ക് വേണ്ടി അന്താരാഷ്ട്ര ത്തില് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒട്ടേറെ ഗോളുകൾ നേടിയൊരു താരമാണ് അതുപോലെത്തന്നെ തൻ്റെ കരിയറിലെ ആദ്യത്തെ അവസരമായിരുന്നു ബാഴ്സലോണക്ക് വേണ്ടി കളിക്കുക എന്നത് ബാഴ്സയിൽ തൻ്റെ അത്ത്യൂരടകമായ പ്രകടനങ്ങളെല്ലാം കാഴ്ചവെച്ചിരുന്നു തൻ്റെ ചെറുപ്പക്കാലം മുതലെ താൻ ഫുട്ബോൾ ഫാഷൻ ഫാഷനെ ഇഷ്ടമായിരുന്നു തൻ്റെ തൻ്റെ കാലിനുവന്ന ഒരു രോഗം മൂലം കുട്ടിക്ക് ഈ ഫുട്ബോളെന്ന കായിക കായിക ഇനം പോലും കളിക്കാൻ പറ്റുകയില്ലെന്ന് തൻ്റെ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ മെസിയുടെ അധ്വാന പരീശീലനം കൊണ്ടുതന്നെ പുള്ളി ഏറ്റവും മികച്ച കായികതാരമായി ഇന്ന് ലോകത്തിനു മുന്നിൽ പ്രകടനം ചെയ്യുന്നു പുള്ളിയുടെ പുള്ളിയുടെ ജീവിതകാലം തുടക്കം മുതൽ തന്നെ പത്തിനഞ്ച് പതിനെട്ട് കൊല്ലങ്ങളോളം ബാഴ്സ സ്പൈനിലെ ബാഴ്സ്യ എന്ന കൾബിൽ ആണ് കളിച്ച് കളിച്ചത് പുള്ളിക്ക് ഏറ്റവും മനോഹരമായി തൻ്റെ കാലങ്ങൾ തൻ്റെ ഫുട്ബോൾ കരിയർ മാറ്റിമറിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ പുള്ളി ഇന്ന് ലോകത്തിലെ ഒന്നാം നമ്പർ ഫുട്ബോൾ താരം എന്ന നിലയിലറിയപ്പെടുന്നു ലേണൽ മെസി ഇപ്പോൾ ഇൻറ്റർ മിയാമി എന്നൊരു അമേരിക്കൻ ക്ലബ്ബിനുവേണ്ടി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു കരിയറിൽ സ്വന്തമായി ഒരു ലോകകപ്പ് കിരീടം തൻ്റെ ഏറ്റവും കൂടുതൽ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമായി ഏറ്റവും അധ്വാനിച്ചതും ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ലോക ലോകത്തിൽ ഒരു കിരീടം വേൾഡ് കപ്പ് എന്നൊരു സ്വപ്നമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു പുള്ളിയുടെ വിജയം ഫസ്റ്റ് കളി പൊട്ടിയപ്പോളും എല്ലാവരും പറഞ്ഞു അർജൻ്റീന ഈ വർഷവും കപ്പടിക്കാൻ പോകുകയില്ല എന്ന് എല്ലാരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ പുള്ളി തൻ്റെ ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പുള്ളി ടീമിന് വേണ്ടി ഒത്തൊരുമയോടെ കളിച്ച് ടീമിൻ്റെ ഒത്തൊരുമ പരിശ്രമത്തിലൂടെ പുള്ളിക്ക് ആ കിരീടം ത്തിലെത്തിപ്പെടാൻ സാധിച്ചു അതായിരുന്നു പുള്ളി അതായിരുന്നു മെസ്സിയുടെ ഈ കരിയർലെ ഏറ്റവും മികച്ച അവസരമെന്ന് മനസ്സിലായി ക്കി അന്ന് നാടിൻ്റെ ഒട്ടായ ആഘോഷത്തിലും പ്രശംസയിലും ആ ദിനം അയാളെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായി മാറ്റി ഇന്നും അതിൻ്റെ ഓരോരോ ഓരോ വർഷമാകുമ്പോഴും ആരാധകർ ആ ലോകകപ്പ് കിരീടത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായി കാണുന്നു ആ ഏറ്റവും ഏറ്റവും കൂടുതൽ ആരാധകർ ഇഷ്ടപ്പെടുന്ന ആ സുവർണ്ണ കാലഘട്ടത്തിലെ മെസീനെയാണ് ഇന്നും മറഡോണയും ഏറ്റവും മികച്ച കളിക്കാരൻ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ എന്നും മെസിയുടെ പേര് പറയും ഇന്നും അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ചെറുപ്പത്തിൽ കളിച്ചതുപോലെ തന്നെ പ്രകടനം നടത്താൻ അദ്ദേഹം അദ്ദേഹത്തിനിഷ്ടമാണ് ഇന്ന് ഏറ്റവും മനോഹരമായി ഫുട്ബോൾ ഒരു കാഴ്ച വെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു പുള്ളി എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടാൽ ചോദിക്കാനുള്ള ഒറ്റൊരു ചോദ്യം ഉള്ളൂ ആ ലോകകപ്പ് വിജയത്തിൽ ഏറ്റവും മറക്കാനാകാത്ത അനുഭവമല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട മെസ്സി എന്നും സ്വന്തം ആരാധകൻ